ഡോക്ടറേ എനിക്ക് ഭയങ്കര തലവേദന ഒക്കെ ആണ് തലവേദന ആണ് മേലൊക്കെ ഭയങ്കര പെയിൻ ആണ് ഇല്ല തണുപ്പൊന്നും കഴിച്ചിട്ടില്ല ഇല്ല പെട്ടെന്നാണൊരു മേലൊക്കെ വേദന എടുക്കുന്നു സ്മെൽ ഒന്നും കിട്ടുന്നില്ല ഭയങ്കര പൈൻ ആണ് ഭയങ്കര ക്ഷീണവും രണ്ട് ദിവസം മുമ്പ് ഒരു മാര്യേജ് ഉണ്ടായിരുന്നു അപ്പോൾ പോയതാണ് പോയിക്കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ടാണ് ഒരു വയ്യായ്ക പോലെ ഫീൽ ചെയ്യുന്നത്

ഹസ്ബൻഡ് ഉണ്ട്

ആയിക്കോട്ടെ അവരോട് വിളിച്ചു പറയുകയാണോ ചെയ്യണ്ടത് അതോ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത് ഓക്കെ ഓക്കെ

ശ്രദ്ധിച്ചോളാം തലവേദന ഭയങ്കര തലവേദന ആണ് അ ശ്രദ്ധിക്കാം ആയിക്കോട്ടെ

വെള്ളം കുടിക്കുന്നുണ്ട്

അ ഓക്കെ ഡോക്ടറെ വല്ല മെഡിസിനും കഴിക്കണോ ആയിക്കോട്ടെ അ ഓക്കെ